ഗുഡാ ആഫ്റ്റർനൂൺ അതെ ഓക്കെ ഇത് ആരാണ് സംസാരിക്കുന്നതാരാണ് പേര് എന്താണ് രമ്യ ഓക്കെ എന്ത് ആ ഓക്കെ എന്തായിരുന്നു അസുഖം ഉണ്ട് എത്ര എത്ര ആണല്ലേ ഓക്കെ എത്ര ദിവസം ആയി തുടങ്ങിയിട്ട്

ആ ആ കൂടെ എങ്ങനെയാണ് കൂടെ ഉള്ളവർക്ക് ആ ഉണ്ടായിരുന്നോ പനി ആ ഓക്കെ പനി മാത്രമേ ഉള്ളോ അല്ലെങ്കിൽ വേറെ വല്ല അസ്വസ്ഥതകളുമുണ്ടോ ആ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ഞാൻ ആറര വരെ ഉണ്ടാകും ഇന്ന് ആ ആറരക്ക് ഉള്ളിൽ വരുവാണെങ്കിൽ കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ പനി തലകറക്കം ഒക്കെയുള്ള സ്ഥിതിക്ക് തണുത്ത ഭക്ഷണം ഒന്നും അങ്ങനെ അധികം കഴിക്കണ്ട പിന്നെ ചൂട് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി പിന്നെ ഞാൻ പനിക്കും തലവേദനക്കും ഉള്ള മരുന്നൊക്കെ ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കുന്നുണ്ട് അപ്പം അതിന് അനുസരിച്ച് നിങ്ങൾക്ക് തരാം ആ ആ ബ്ലഡ് സാമ്പിളിന് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറ് രൂപ ഇടയിൽ ഉണ്ടാകും ഓക്കെ മുമ്പ് ടെസ്റ്റ് ചെയ്തത് ഉണ്ടോ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം മുമ്പ് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം ടെസ്റ്റ് ചെയ്യേണ്ടി വരും ആ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂട് ഭക്ഷണം കഴിക്കാം പിന്നെ തണുത്തതൊക്കെ ഒഴിവാക്കാം ഓക്കെ അപ്പം ആ ആറരക്ക് ഉള്ളിൽ വരുകയാണെങ്കിൽ കാണാൻ പറ്റും